ഞാന് പിന്നെ ഈ തോട്ടകൃഷിയൊക്കെ ചെയ്യും നമ്മളുടെ ചീര മത്തൻ കുമ്പളങ്ങ പയറ് വെണ്ട തക്കാളി വഴുതനങ്ങ അങ്ങനെയൊക്കെയുള്ള തോട്ടക്കൃഷിയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ ഈ കമ്പോസ്റ്റുണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടേൽ നമ്മളീ ഈ പച്ചക്കറി നമ്മള് തണ്ടു മുറിക്കില്ലേ പച്ചക്കറി ചീഞ്ഞു പോകുന്നത് അതേപോലെതന്നെ മീനിൻ്റെ നമ്മള് മീൻ കട്ടേയ്യുമ്പോയുള്ള വേസ്റ്റ് പച്ചക്കറി നമ്മള് തൊലികളയുന്ന വേസ്റ്റ് അങ്ങനെയുള്ള വെസ്റ്റൊക്കെ ഞാനൊരു ഡ്രമ്മിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കും അപ്പം അത് നമുക്ക് വളമാക്കി എടുക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മള് കമ്പോസ്റ്റുണ്ടാക്കുന്നത് അങ്ങനെയാണുണ്ടാക്കുന്നത് വളമാക്കി മാറ്റുന്നതില് നമുക്കെന്താന്നറിയോ നമ്മള് നമ്മുടെ ചെടിക്ക് ഇട്ട് കൊടുക്കുമ്പം അത് നമ്മള് രാസവളം ഇടുന്നതിനേക്കാളും നന്നായിട്ട് ഉണ്ടായിക്കോളും അതായത് ശുദ്ധമായ നമ്മളുടെ വളമാണ് അതായത് വേറൊരു വളവില്ലാതെ ശുദ്ധമായിട്ടുള്ള കുറച്ച് പിന്നെ ചാണകവെള്ളം കലക്കിവെക്കുക കലക്കിയിട്ട് അതിനകത്ത് നമ്മളുടെ ശീമക്കൊന്നേൻ്റെ ഇല പിന്നെ ഇങ്ങനെ ഇടുക വാഴ വാഴ വാഴപ്പഴത്തിൻ്റെ തോലൊക്കെ ഇട്ടിട്ട് ഇളക്കുക എല്ലാദിവസവും ഇളക്കുക എന്നിട്ട് അത് പിന്നെ ഒരിത്തിരി ആ ഒത്തിരി വളത്തിലേക്ക് കുറെ വെള്ളമൊഴിച്ചിട്ട് നമ്മള് ഒഴിച്ചു വെക്കുമ്പോൾ അതേറ്റവും നല്ലൊരു വളവായിട്ട് മാറുമത് നമുക്ക് എത്ര ചെടിക്ക് വേണെങ്കിലും ഒഴിക്കാം ഞാനങ്ങനെയൊക്കെയാണ് ഇതാക്കുന്നത് അങ്ങനെ കമ്പോസ്റ് വളമാക്കിയിട്ടൊക്കെയാണ് ഞാന് നമ്മുടെ പച്ചക്കറിക്കും ചെടിക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് നല്ലതാണ് നന്നായിട്ടുണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ